ഉറപ്പായിട്ടും മാധ്യമങ്ങളാണ് രാജ്യത്തിൻ്റെ നെടുംതൂണ് എന്ന് പറയുന്നത് കാരണം നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുക തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ സമൂഹത്തിൽ നിഷ്പക്ഷതയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തെയാണ് നമുക്കാവശ്യം അതാണ് ഇന്നത്തെ കാലത്ത് കാണാത്തതും എനിവെയിസ് പക്ഷേ ആ അങ്ങനെയൊരു മാധ്യമത്തിനെപ്പറ്റി പറയുമ്പോൾ അവ മാധ്യമമാണ് രാജ്യത്തിൻ്റെ നെടുംതൂണ് എന്ന് പറയുന്നത് കാരണം എല്ലാ കാര്യങ്ങളെയും മേലാണെന്നോ കീഴാണെന്നോ നോക്കാതെ വ്യക്തമായിട്ട് വിവരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുമെങ്കിൽ മുഖ്യമന്ത്രിയെന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെന്നോ ഗവർണറെന്നോ ഇല്ലാതെ തുറന്നടിക്കാൻ ഒരു മാധ്യമത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളെയും അവർ അവരുടെ നല്ല കാര്യങ്ങളെയും പറ്റി പ്രശംസിക്കാനും തെറ്റുകളെ ചൂണ്ടികാണിക്കാനും ഒരു മാധ്യമത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അവ തന്നെയാണ് രാജ്യത്തിൻ്റെ നെടുംതൂണും അടിത്തറയും അടിത്തറ നന്നായാലേ മുകളിലോട്ടുള്ള കാര്യങ്ങൾ നന്നാവുകയുള്ളൂ അപ്പോൾ അതാദ്യം നന്നാക്കി എടുക്കുക എന്നുളളതാണ് നമ്മുടെ മാധ്യമ സമൂഹത്തിൻ്റെ ഇനിയുള്ള ഉത്തരവാദിത്വം